ഇന്ത്യയിലെ കാലാവസ്ഥ പിന്നെ പലതരത്തിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് കേരളത്തിൽ തമിഴ്നാട് കർണാടക അവിടെയൊക്കെ ഏകദേശം ഒരേ കാലാവസ്ഥയാണ് ഹൈദറാബാദ് ആ ഭാഗങ്ങളിലൊക്കെ ഒരേ കാലാവസ്ഥയാണ് ജമ്മുകാശ്മീർ അങ്ങോട്ടേക്ക് പോകുമ്പം വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെത്തന്നെ കേരളത്തിൽത്തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജൂൺ തൊട്ട് മഴക്കാലമാണ് കുറച്ച് കാലത്തേയ്ക്ക് ഒരു അഞ്ചാറു മാസത്തേയ്ക്ക് മഴയാണ് അതു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പുകാലമാണ് ഒരു ഒക്ടോബർ തൊട്ട് ജാനുവരി വരെ തണുപ്പുകാലമാണ് അതു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലാണ് മാർച്ചൊക്കെ നല്ല അസഹ്യമായ വെയിലാണ് പുറത്തോട്ടൊക്കെയാണെങ്കിൽ പിന്നെ ജമ്മുകാശ്മീരിലൊക്കെ ആണ് തണുപ്പാണ് കാശ്മീർ ഭാഗത്തേയ്ക്ക് തണുപ്പാണ് വെയിലും ഉണ്ട് തണുപ്പും ഉണ്ട് അസഹ്യമായ തണുപ്പാണ് അപ്പോൾ ഇന്ത്യയുടെ പുറത്തേക്കെടുക്കുകയാണെങ്കിൽ ഇപ്പം ഖത്തർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ദുബായ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ അസഹ്യമായ വെയിലാണ് അവിടെ മഴയെന്നു പറഞ്ഞ സംഭവമേ ഇല്ല കാലാവസ്ഥ ഓരോ മാസങ്ങളെ ഡിപ്പെന്റ് ചെയ്ത് ഇരിക്കുന്നൊരു പ്രവണതയാണ് കണ്ടു